ചെറുകിട കൃഷി ചെയ്യുന്ന എനിക്ക് മഴ അങ്ങനെ ആശ്രയിക്കാറില്ല എന്നിരുന്നാലും മഴയുള്ളത് നല്ലതാണ് ഗുണവുമാണ് പയർ ചീര പടവലങ്ങ പാവയ്ക്ക തക്കാളി മുളക് എന്നിങ്ങനെ ചെറിയ കൃഷികൾ വീട്ടുമുറ്റത്ത് തന്നെ ചെയ്യുതല്ല അതിന് ആവശ്യമായ വെള്ളം

ആ കൈകൊണ്ട് ഒഴിക്കുന്നതും പിന്നെ അതിനോട് അതിനോട് അതുകൂടാതെ ഡ്രിപ്പ് ഇറിഗേഷൻസ് പൈപ്പ് വഴി ഡ്രിപ്പ് ഇറിഗേഷനും ചെയ്യുന്നുണ്ട് ഇത് ഗുണകരമായി മാറുന്നുമുണ്ട് പിന്നെ ഇതിന് അനുയോജ്യമായ മണ്ണും അതിന് ആവശ്യമായ വളവും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട് മഴ ഒരു അവിഭാജ്യ ഘടകമാണ് ആവശ്യവുമാണ് എന്നിരുന്നാലും മഴയും വെയിലും ഒരുപോലെ ആവശ്യമുള്ളതുകൊണ്ട് ഈ ചെറുകിട കൃഷിക്ക് വീട്ടിലുള്ള വെള്ളം ഉപയോഗിച്ചും ആ വിളവെടുക്കാറുണ്ട്